ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് ബംഗാളികളെയാണ് ഇന്ന് നമ്മൾ ഒരു ജോലി ചെയ്യാൻ വീട്ടിലേക്ക് ഒരു ജോലിക്കാവശ്യമായി നമ്മൾ അവരെ വിളിച്ചാൽ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾക്ക് അവരുടെ ഭാഷ അറിയില്ല അവർക്ക് നമ്മുടെ ഭാഷയും കുറച്ചൊക്കെ അറിയാമെങ്കിലും നല്ല പോലെ അറിയില്ല അപ്പം നമ്മൾ അവരോട് എങ്ങനെയാണ് സംസാരിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അവർ കൈകൊണ്ടും തലകൊണ്ടും ഫേസ് കൊണ്ടും കണ്ണു കൊണ്ടുമൊക്കെ നമ്മൾ കുറേ ആംഗ്യ ഭാഷയിൽ കൂടി നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ നമ്മൾ നമ്മളെ മലയാള ഭാഷ ഉപയോഗിച്ചും അവരുടെ ഭാഷയിൽ കൂടി കൂട്ടിച്ചേർത്തും നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് പിന്നെ എന്ന് വച്ചാൽ അവർ നമ്മുടെ നാട്ടിൽ ഇപ്പം കൂടെ കൂടെ അവർ വരുന്നത് കൊണ്ടും നമുക്ക് കുറച്ചൊക്കെ അവരുടെ ഭാഷ നമ്മൾക്കും അറിഞ്ഞു കൊണ്ട് വരുന്നുണ്ട് അപ്പം കുറച്ചൊക്കെ അവരുടെ ഭാഷയും കുറച്ച് നമ്മുടെ മലയാളവും ഉപയോഗിച്ച് നമ്മൾ കൂട്ടി ചേർത്ത് ഇണക്കിയാണ് നമ്മൾ അവരെ സംസാരിച്ചു കൊണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കി എടുപ്പിക്കുന്നത് നമ്മളിപ്പോൾ പുറത്തൊരു ടൗണിൽ പോകുക ആയാലും ഒരു കടയിലാണെങ്കിലും പെട്രോൾ പമ്പിലായാലും നമ്മൾക്ക് ഇന്ന് അവരാണ് ബംഗാളികൾ ആണെങ്കിലും കൊറിയക്കാർ പല രാജ്യക്കാരാണ് ഇപ്പം നമ്മളെ നാട്ടിൽ ഉള്ളത് പല ജോലിക്കായിട്ടും അവർ കയറിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ആ ഒരു കടയിൽ ചെന്ന് ആവശ്യം പറയണമെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ നമ്മൾക്കറിയാവുന്ന രീതിയിലാണ് പറയുന്നത് അപ്പം നമ്മൾക്ക് എല്ലാ ഭാഷയും അറിഞ്ഞോളണം എന്നുണ്ടാവില്ല ഇംഗ്ലീഷ് കറക്റ്റായിട്ട് അറിയാത്തവർ മലയാളം മാത്രം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷോ അതു പോലെ ഹിന്ദി ഒന്നും അറിയാത്ത ഉണ്ടാവില്ല അതുപോലെ അറബി രാജ്യങ്ങളിൽ നിന്നും അറബികളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് നമുക്ക് അതൊന്നും സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ അവരോടൊക്കെ നമുക്കറിയാവുന്ന ഭാഷയും അവരുടെ ഭാഷയും നമ്മുടെ ഭാഷയും ഒക്കെപ്പാടെ നമ്മൾ ചേർത്താണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ എന്ന് വച്ചാൽ നമ്മൾ കുറേയൊക്കെ അറിയാത്ത നമ്മൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആംഗ്യം കാണിച്ച് അങ്ങനെയൊക്കെ പറയാൻ നോക്കും പിന്നെ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മൾ നമ്മളെ ഭാഷ അവർക്കും അറിയില്ലെങ്കിലും അവരും കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ നമുക്ക് നമ്മളൊക്കെ അവരുടെ ഭാഷ അറിയാത്തത് കൊണ്ട് അവരും കുറെയൊക്കെ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ നമുക്കും മനസ്സിലാക്കി മനസിലായ രീതിയിൽ അവർ പറഞ്ഞു തരും പിന്നെ നമ്മൾ പണ്ടൊക്കെ പുറം രാജ്യങ്ങൾ പോവുമ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും എല്ലാം വരുന്നത് കൊണ്ട് നമ്മൾക്ക് ഇപ്പം അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്